സമീപത്ത് രാത്രി വൈകിയ സമയത്ത് ലഭ്യമാണോന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ബസ് ആണെങ്കിലും ട്രെയിൻ ആണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും ഞങ്ങൾക്ക് ഒരു ചിലപ്പം ഓരോ സമയത്തായിരിക്കും ചിലപ്പം ലേറ്റ് ആയിരിക്കാം അതൊക്കെ വരുന്നത് അതിനാൽ ഞങ്ങൾക്ക് വീടുകളിലേക്ക് സമീപിക്കണമെങ്കിൽ ഓട്ടോ ആണെങ്കിലും മറ്റു ടാക്സി ആണെങ്കിലും എന്തായാലും വിളിക്കേണ്ടി വരുന്ന സാഹചര്യം ആണെങ്കിൽ രാത്രി ഇപ്പം എന്താ പറയാ ചെറിയ ഇടയ ഇപ്പോൾ ഗ്രാമത്തിലൊക്കെയാണെങ്കിൽ ഓട്ടോകളൊക്കെ ഭയങ്കര കുറവായിരിക്കും ഇപ്പോൾ നഗരത്തിലൊക്കെയാണെങ്കിൽ ഓട്ടോ ആണെങ്കിലും ബസ് ആണേലും എല്ലാം ഏത് സമയത്താണെങ്കിലും ഉണ്ടാവും ബികോസ് അത് ടൌൺ ഏരിയ ആയതുകൊണ്ട് നഗരത്തിലാണെങ്കിൽ അത് ഭയങ്കര അൺലി സ്ഥലം ആയതുകൊണ്ട് ഓട്ടോകളിൽ പോകാൻ കഷ്ട്ടമായിരിക്കും ഇപ്പം എക്സാമ്പിൽ ഫോറസ്റ്റ് ഏരിയ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പോവാനുള്ളതിനൊക്കെ അപ്പം ഞങ്ങൾ സമീപത്ത് ഓട്ടോ കിട്ടാനെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ട്ടമുള്ള ഒരു സമയങ്ങളാണ് ഈ രാത്രി വൈകിയ നേരത്ത് ഓട്ടോ കിട്ടുന്നതൊക്കെ